ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ പറയൂ

ആ ഓക്കെ ഓ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള ബ്രേക്ഫാസ്റ്റുകൾ എന്താണ് ഫേയ്മസ് ആയിട്ടുള്ളത് അല്ലേ

ആ ഓക്കെ ദോശ അല്ലാണ്ട് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ബ്രേക്ഫാസ്റ്റിലൊക്കെ എല്ലാവരും കഴിക്കുന്നത് ഇഡിലി ആ പുട്ട് പുട്ട് ആ പുട്ട് അവൈലബിൾ ആണ് എല്ലാ പുട്ടും നമ്മൾ തന്നെ ആണ് ഉണ്ടാക്കിയത് ഡിഫറൻറ് ടൈപ്പ്സ് പുട്ട് ഉണ്ടാവും അരി ഗോതമ്പ് റവ അങ്ങനെ ഡിഫറൻറ് ടൈപ്പ്സ് പുട്ട് അവൈലബിൾ ആണ് ആ അങ്ങനെ നമ്മുടെ ആ എല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളുടെ കേരളത്തിൽ ശരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ബ്രേക്ഫാസ്റ്റിനു കൊടുക്കുന്നത് ദോശ ഇഡിലി ആണ് പുട്ടൊക്കെ നമ്മൾ സാദാ പുട്ടാണ് കൊടുക്കാറ് മറ്റേ പൈനാപ്പിൾ പുട്ട് ഒക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ റസ്റ്റോറൻറിലൊക്കെ പോവുമ്പോഴേ കിട്ടുള്ളൂ ആ ഓക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ റസ്റ്റോറൻറിനെ പറയുന്ന സമയത്ത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്നത് നമ്മുടെ മസാല ദോശ നെയ്റോസ്റ്റ് പിന്നെ നമ്മുടെ ഇഡിലി ചമ്മന്തി ഇടിയപ്പം പുട്ട് ഇതൊക്കെ ആണ് ഞങ്ങളുടെ മെയിൻ ഐറ്റംസ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇൻററസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതുവരെ ഇതൊക്കെ ഇതൊക്കെ അവിടെ കഴിച്ചിട്ടുണ്ടോ ഇതൊക്കെ ദോശയും പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ വിസിറ്റ് ചെയ്തിട്ട് വേണം ഓ ഓക്കെ ഓക്കെ ഇവിടുത്തെ ബ്രേക്ഫാസ്റ്റുകളെല്ലാം മെയിൻ ആണ് നിങ്ങൾ എന്തായാലും വന്നോളൂ അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കും കുക്ക് ചെയ്ത് തരും ഞങ്ങളുടെ റസ്റ്റോറൻറ് ആണ്

ആ ഭയങ്കര ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ എപ്പോഴാണ് ഇനി വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇൻഫോം ചെയ്യൂ അങ്ങനെ ഇൻഫോം ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തായാലും വെറൈറ്റി ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് ട്രൈ ചെയ്യാം മെയിൻ ആയിട്ട് ഞങ്ങൾ രാവിലെ എന്തായാലും നമ്മൾ ദോശ തന്നെയാവും മെയിൻ ആയിട്ട് കാരണം ഞങ്ങളുടെ ദോശ ഇവിടെ ഫേമസ് ആണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ദോശ എന്തായാലും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടാക്കി തരാം വെറൈറ്റീസ് ഓഫ് ദോശയും ഓക്കെ നിങ്ങൾ നിങ്ങൾ എല്ലാം ഞങ്ങൾ ഞങ്ങൾ നല്ല മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാം ചെയ്ത് തരും ഞങ്ങൾ ഞങ്ങൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾ എന്തായാലും ഗാരണ്ടി തരുന്നുണ്ട് നിങ്ങൾ വരുന്ന ടൈമിൽ ഞങ്ങളെ വിളിച്ചാൽ മതി നോർമൽ റേറ്റ് ആണ് സിക്സ്റ്റി സെവൻ്റി അത്രയൊക്കെ ചാർജിങ് വരുള്ളൂ മെയിൻ ആയിട്ട് ഫുഡ് ആണല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നോളൂ ഞങ്ങൾ പെർഫക്റ്റ് ഞങ്ങൾ തരാൻ പോവുന്നത് നിങ്ങൾ അത് പേടിക്കേണ്ട ശരി